ഞങ്ങളുടെ പ്രദേശത്ത് ഉള്ള ആശുപത്രിയേക്കാൾ പട്ടണത്തിലെ ആശുപത്രികളിൽ സൗകര്യങ്ങൾ കൂടുതലായി കാണാറുണ്ട് അതായത് അടുത്തുള്ള ആശുപത്രികളിൽ നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കൽ കേസുമായി ചെന്നാൽ അവർ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യും അത് കാരണം അവിടെ അതിനു വേണ്ട ഫെസിലിറ്റീസ് കാണുകയില്ല അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ലാബ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ചെയ്യേണ്ടതോ അങ്ങനെ എന്തേലും ഇതു വരുമ്പം അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ വന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ടാണ് ചെയ്യാറ് അങ്ങനാണ് അവർ പറയാറ് പിന്നെ എന്നിട്ട് ആ സ്കാൻ ചെയ്ത റിസൾട്ടുമായ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയും അത് അധിക ചിലവാണ് പിന്നെ ഉണ്ടാക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ സിറ്റിയിലുള്ള ആശുപത്രികളിൽ എല്ലാം സജ്ജീകരണങ്ങളുണ്ട് നമുക്ക് സ്കാൻ ചെയ്യാനോ ബ്ലഡ് ടെസ്റ് ചെയ്യാനോ ഒന്നും പുറത്ത് തന്നെ ലാബുകളിലെ ആശ്രയിക്കേണ്ടി വരില്ല എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ കാണും അതുപോലെ തന്നെ എല്ലാ നൂതന സജ്ജീകരണങ്ങളും പട്ടണങ്ങളിലെ ആശുപത്രികളിലുണ്ട് നമ്മുടെ പ്രദേശത്തെ ആശുപത്രികളിൽ

അങ്ങനത്തെ ആശുപത്രികൾ എടുത്താൽ ഇത്തരത്തിൽ നൂതന സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാകാറില്ല അതുകൊണ്ടു തന്നെ അവിടെ എല്ലാ സേവനങ്ങളും ലഭിക്കാറുമില്ല എല്ലാ ആശുപത്രികളിലും എല്ലാവിധത്തിലും സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ആശുപത്രികളെ കാരണം നമ്മുടെ നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നതും ആരോഗ്യപ്രശ്നങ്ങൾ പരിഹരിക്കാനും അങ്ങനെ വരുമ്പം അടിയന്തര ഘട്ടങ്ങളിൽ വേണ്ടത്ര സജ്ജികരണങ്ങൾ ഇല്ലാതെ വന്നാൽ അത് വ വലിയ ബുദ്ധിമുട്ട് തന്നാണ് ജീവനെത്തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നു പിന്നെ എന്താ സാധാരണ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവണം തന്നാണ്